അത് കഴിഞ്ഞട്ടുതന്നെ നമ്മുടെ പിന്നെ പാസ്പ്പോർട്ടിന്റെ കോപ്പി കരമടച്ച രസീത് ഐഡെൻ്റിറ്റി കാഡിന്റെ കോപ്പി പിന്നെ ആധാറിന്റെ കോപ്പി പഴയ ആധാറിന്റെ ഇപ്പോഴത്തെയല്ല പഴയ ആധാറിന്റെ കോപ്പി ഇതെല്ലാം അവർക്ക് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു ഇത് കൊടുത്തിട്ടും നമക്കിത് ഇത് ഒരു കാരണവശാലും അക്ഷയ പരമായിട്ട് അക്ഷയുടെ ഇതുമായിട്ട് എനിക്കിതുവര മെസ്സേജൊ കോളൊ ഒന്നും വന്നിട്ടില്ല അക്ഷയയെ കുറ്റം പറയുവകയല്ല അക്ഷയയുമായിട്ട് ഒന്ന് അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സംഭവമാണ് ഇല്ലെന്നല്ല നല്ലൊരു സംഭവമാണ് ഇതുവരെ എനി മെസ്സേജൊ കോളൊ അങ്ങനെയൊരു സംഭവം എനിക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ അത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണമൊരു വെക്തിയുടെ ഐഡെൻ്റിറ്റിയെന്ന് പറയുന്നത് ആധാർക്കാഡാണ് ഇന്ത്യയിലെവിടെ സഞ്ചരിക്കണമെങ്കിലും ആധാർക്കാഡില്ലാത പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇത് കൃത്യമായി നിയന്ത്രിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്